ഹലോ താജ് ഹോട്ടലല്ലേ ഞാൻ ഇന്നലെ വൈകീട്ട് ഒരു പിന്നെ മിക്സഡ് ഫ്രൈഡ് റൈസ് ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ഒരഞ്ചെണ്ണം പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാനൊരു ഒമ്പതു മണിക്കാണ് ഓർഡർ ചെയ്തത് പക്ഷേ എന്നിരുന്നാൽപ്പോലും ഒരു ഒമ്പതരയൊക്കെ ആയപ്പോൾ കൊണ്ടുവന്നു ഒമ്പതര ഒമ്പത് മുപ്പത്തഞ്ചായപ്പോഴത്തേക്കും ആ ഡെലിവറി ചെറുക്കൻ കൊണ്ടുവന്നു ഏൽപ്പിച്ചേ അപ്പം നല്ല ഫുഡ്ഡുമായിരുന്നു അവൻ കൃത്യടൈമിന് കൊണ്ടെത്തിക്കുകയും ചെയ്ത് എല്ലാം തന്നെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം എനിക്കും എൻ്റെ മക്കൾക്കുമൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട് അപ്പം അതൊന്ന് പറയാൻ വേണ്ടീട്ടും ആ ചെറുക്കനൊരു പിന്നെ കറക്റ്റ് ടൈമിന് ഞങ്ങൾക്ക് വിശന്നിരുന്ന സമയത്ത് കൊണ്ടുതന്നു അപ്പം അവനൊരു താങ്ക്സ് പറയാനൊക്കെ വേണ്ടിയിട്ട് വിളിച്ചതാണേ അപ്പം എന്നാൽ ആ ചെറുക്കനോട് പറഞ്ഞേക്കണേ ഇന്നലെ വൈകീട്ട് ഒമ്പത് മണിക്ക് നൈറ്റിന് നമ്മുടെ കുഴുപ്പള്ളി ജംഗ്ഷനിൽനിന്ന് ചെറുക്കൻ കൊണ്ടുവന്നത് അപ്പം അവനോടൊരു താങ്ക്സ് പ്രത്യേകം പറയണം ഫുഡുണ്ടാക്കി തന്ന ഷെഫിനോടും ഹോട്ടലിനോടും താങ്ക് യൂ കേട്ടോ നല്ല ഫുഡായിരുന്നു